നമുക്കിപ്പം കൃഷീനെക്കുറിച്ചാണെങ്കിലും മൃഗസംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്കിപ്പോൾ ഗവൺമെന്റ് ഇന്നത്തെ കാലത്ത് ഇതൊന്നും കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ മടിയുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വല്യ ധാരണ ഇല്ല കൃഷ കൃഷീനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇതിനേക്കുറിച്ചിട്ടൊക്കെ ഗവണ്മെന്റ് ശ്രദ്ധയിൽപ്പെടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്കൂൾ തലത്തിലൊക്കെ ക്ലാസ്സ്കൾ കൊടുക്കാറുണ്ട് അതേപോലെ സ്കൂൾ തലത്തിൽ നമുക്ക് കോഴികളെ വളർത്ത് കോഴികളെ കൊടുക്കാറുണ്ട് ഒരു കുട്ടിക്ക് നാല് കോഴി അല്ലെങ്കിൽ അഞ്ച് കോഴി കുഞ്ഞുങ്ങളെ വളർത്താൻ കൊടുക്കാറുണ്ട് അതേപോലെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇതിനു വേണ്ടി ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട് കൃഷി ഭവൻ്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലും മറ്റേ കോളേജ് തലത്തിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ്സുകളെടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ബാക്കി ഉള്ളവർക്കൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് കൊടുക്കുക അതേപോലെ എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛൻ അച്ഛച്ചൻമാർ പറഞ്ഞുതന്ന പോലെ ഈ കേട്ടറിവും അവർ അവർ ചെയ്യണ കണ്ടിട്ടുള്ള അറിവുകളൊക്കെയാണുള്ളത് അവർ ഇപ്പം കൃഷിയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അച്ഛൻ അച്ഛനൊക്കെ കൃഷിയുണ്ട് ഇപ്പം നെൽ കൃഷിയൊക്കെ അവർ ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അവർ പോണതും അതേപോലെ കൊയ്യണതും നെല്ല് കടത്തണതും നെല്ലരച്ച് അരി ആക്കണതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ മരപ്പണിയാണെങ്കിൽ മരപ്പണി ചെയ്യണതും വീട്ടിൽ വേണ്ട മരപ്പണിയൊക്കെ അതിപ്പം കോഴിക്കൂടുണ്ടാക്കാനാണെങ്കിലും നായ്ക്കൾക്ക് കൂടുണ്ടാക്കാനാണങ്കിലും അതൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പശു വളത്താൻ ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ട് അപ്പം പശൂനെ ഒക്കെ വളർത്തണതൊക്കെ നമ്മൾ നേരിട്ട് കാണന്നതാണ് നമ്മൾ ഇതൊക്കെ നമുക്ക് കുറേ ഒക്കെ കണ്ടറിവാണ് കുറേ ഒക്കെ വീട്ടുകാർ പറഞ്ഞ് തരുന്ന അറിവുണ്ടാവും പിന്നെ ഗുരുക്കന്മാർ പറഞ്ഞ് തരുന്ന അറിവുണ്ടാവും പിന്നെ നമ്മൾ ക്ലാസ്സിനെവിടേയും പുറത്ത് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അതിനൊക്കെ പോയി പഠിക്കണ അറിവുകൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടണ പ്രധാനമായിട്ടുള്ള അറിവുകളും നമ്മൾ പകർന്ന് കൊടുക്കണ അറിവുകളൊക്കെ